ഞാനിപ്പോൾ ഇടക്കിടയ്ക്ക് നമ്മുടെ കോഴിക്കോട് ടൗണിലൊക്കെ ഇടക്കിടയ്ക്ക് പോകാറുണ്ട് കാരണമെന്തെന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് അധികം വലിയ ദൂരവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇടക്കിടയ്ക്ക് പോകാറുണ്ട് നമ്മൾ ഇടക്കിടയ്ക്ക് സന്ദർശിക്കാറുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇടയ്ക്ക് ഞാൻ അവിടെ ബസ് സ്റ്റാന്റിലൊക്കെ പോവും ഇടയ്ക്ക് ബസ്സിൽ പോവും കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ പോവും ഇടയ്ക്ക് അങ്ങനെയൊക്കെ പോകാറുണ്ട് നമ്മൾക്ക് പാളയത്ത് പോകും ബീച്ചിൽ പോകും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ സന്ദർശിക്കാറുണ്ട് നമ്മൾ കൂടുതലായിട്ടും പോകുന്നതെന്ന് വച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ഡ്രസ്സ് ഇപ്പോൾ ഓണം ഒരു ആ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓണത്തിന് ആ ടൈമിനൊക്കെ പോകും പിന്നെ അല്ലാത്ത സമയങ്ങളിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരാവശ്യവും കാര്യങ്ങളെക്കെ ഉണ്ടാവും കാരണം ഇപ്പോൾ ഒന്ന് റീച്ചാർജ് ചെയ്യണമെങ്കിലും ഇപ്പോൾ ബാങ്കിൽ ക്യാഷ് ഇടണമെങ്കിലും ഇപ്പോൾ നമുക്കെന്തെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഒരു സാധനം വാങ്ങണമെങ്കിൽത്തന്നെ ഇപ്പോൾ ഇപ്പൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൽ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് പോകും അങ്ങനത്തെ പല ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഇവിടെയൊക്കെ സന്ദർശിക്കാറുണ്ട് ഇടക്കിടയ്ക്ക് ഞാനിപ്പോൾ പോയ് പോയിട്ടേയുള്ളു ഇന്നും കൂടി ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നിട്ടേ ഒള്ളു അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും അതിനെല്ലാം നമ്മൾ പട്ടണങ്ങളിലൊക്കെയാണ് പോകാറുള്ളത്